ജീവിതത്തില് ഞാൻ പഠിച്ച പാഠമെന്ന് പറഞ്ഞാൽ ഞങ്ങള് ചെറിയ കാര്യത്തിന് പോലും വീട്ടിലുള്ള അമ്മമാരെ നമ്മള് ചീത്ത പറയുവായിരുന്നു ചെറിയൊരു കാര്യം മതി നമ്മളൊന്ന് കൂടുതൽ നമ്മളോട് സ്നേഹത്തില് സംസാരിച്ചാൽ തന്നെ നമ്മള് ചില സമയത്ത് സ് കോളേജൊക്കെ വിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മൂഡിലായിരിക്കും അവരെ വരിക നടന്ന് ക്ഷീണിച്ച് വരുന്ന സമയത്ത് നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മക്കൊരുപാട് ദേഷ്യം വരും അങ്ങനെ നമ്മളൊരുപാട് അവരോട് നല്ല ഷൗട്ട് ചെയ്ത് നല്ല ദേഷ്യത്തില് സംസാരിക്കും പക്ഷേ അവർക്കത് ഭയങ്കരവായിട്ട് ടെൻഷനായിട്ടുണ്ടാവും അതൊക്കെ പിന്നീടാണ് മനസ്സിലാവുക ഞങ്ങള് നമ്മുടെ അം നമ്മുടെ അമ്മമാരെ ചീത്ത പറഞ്ഞ് കുറെ നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തോന്നും പറയണ്ടായിരുന്നു അങ്ങനെയൊക്കെ തോന്നാറുണ്ട് പിന്നെ അപ്പം തീരുമാന എടുക്കും ഇനിമുതല് നമ്മള് നമ്മുടെ അമ്മേനെ കരയിപ്പിക്കരുത് നമ്മള് കാരണം ആരും വേദനിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഒര് തീരുമാനം എടുത്തത്